ഞാൻ ഫോട്ടോഗ്രാഫി പഠിക്കുന്നത് എനിക്ക് അത് ഒരുപാട് ആഗ്രഹമുള്ള ഒരു ആഗ്രഹമുള്ളത് കൊണ്ട് കൂടിയാണ് പഠിക്കുന്നത് പഠിക്കാൻ പോകാനായിട്ട് അത് ഇൻസ്റ്റിട്യൂഷനിൽ ഒക്കെ തിരക്കി അന്നേരം അവിടെ പോകണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു പക്ഷേ എനിക്ക് അത് സാധിക്കാത്തത് കൊണ്ട് ഞാൻ ഓൺലൈനായിട്ട് വീഡിയോസ് കണ്ടാണ് ഞാൻ പഠിച്ചത് അപ്പോൾ അവരത് നമുക്ക് ഡീറ്റൈലായിട്ട് നമുക്ക് പറഞ്ഞു തരും ഓരോ വീഡിയോസിലുടെ നമുക്ക് അത് കൃത്യമായിട്ട് മനസ്സിലാകും ഈ ആ ഫോട്ടോ ഇങ്ങനെ എടുക്കണം അപ്പോൾ ഓരോ ഓൺലൈൻ സെൻറ്റേഴ്സ്ന്നാണ് ഞാൻ പഠിച്ചത് അപ്പോൾ ഓരോ വീഡിയോസ് കണ്ട് ഞാൻ അത് വളരെ ശ്രദ്ധാപൂർവം പഠിച്ച് അപ്പോൾ അത് അത് കണ്ടതിലൂടെയാണ് എനിക്ക് ആ ഫോട്ടോഗ്രാഫി ഇത്രയും ഞാൻ ഇപ്പോൾ എടുക്കുന്ന എൻ്റെതായിട്ടുള്ള ആ ഒരു സ്കിൽ ലെവൽ വെച്ച് എനിക്ക് ആ ഞാൻ അങ്ങനെയാണ് പഠിച്ചത് അല്ലാതെ ഞാൻ ഇൻസ്റ്റ്യൂഷനിൽ പോയി പഠിക്കണമെന്ന് എനിക്ക് ഒരുപാട് ഉണ്ടായിരുന്നു ഇൻസ്റ്റിട്യൂഷൻ പോയി പോകാൻ സാധിക്കാത്തത് കൊണ്ടാണ് ഞാൻ ഓൺലൈൻ പഠിച്ച ഓൺലൈൻ പഠിക്കുന്നതിനോട് ഞാൻ ഒട്ടും ഡിസ്സപോയിൻറ്റഡ് അല്ല പക്ഷേ അത് വളരെ നല്ലതാണ് എനിക്ക് എനിക്ക് ഞാൻ അതിൽ വളരെ സാറ്റിസ്ഫൈഡാണ് അപ്പം ഓൺലൈൻ പഠിച്ച ഓൺലൈൻ പഠിക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഗുണങ്ങളുണ്ട് ഫീൽഡിൽ നമുക്ക് ഓൺലൈനായിട്ട് അവർ വളരെ അധികം എക്സ്പ്ലെയിൻ ചെയ്ത് നമുക്ക് തരുന്നതായിരിക്കും